നമ്മളിപ്പോൾ ഏതൊരു വ്യാപാര കേന്ദ്രത്തിൽ പോയാലും നമ്മൾ ഇപ്പോൾ വില പേശണമെങ്കിൽ തന്നെ മലയാളത്തിൽ വേണം വിലപേശാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വാണി വാണിജ്യവും എല്ലാ കാര്യങ്ങളിലും നമുക്ക് മലയാള ഭാഷ പൂർണ്ണമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് കാരണം എന്ത് വച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പോൾ കോഴിക്കോട് പോയിട്ട് പാളയം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവരിങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത് അടക്കം ഇങ്ങനെ മലയാളത്തിലാണ് അപ്പം നല്ല നല്ല രീതിയിലുള്ള മലയാളം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിലക്കുറച്ച് ഇപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ വിലക്കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിലൽ മലയാള ഭാഷ നന്നായിട്ട് ഉപയോഗിച്ച് നമ്മൾ അവരെ കീഴ്പ്പെടുത്താൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം അപ്പം അന്നേരം നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പം നല്ല രീതിയിലുള്ള മലയാളം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നമുക്ക് അതായത് ഒരു കിഴിവ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പിന്നെ നമുക്ക് സാമ്പത്തികം ആയിട്ടും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നിൽക്കണമെങ്കിൽ തന്നെ മലയാള ഭാഷ അത്യാവശ്യമായിട്ട് ഉപയോഗം ഉപയോഗിക്കണം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ